ഒരു ഗ്രാമത്തില് നല്ലൊരു ശതമാനം തന്നെ പ്രായമായ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ എന്നാൽ ഈ പ്രായമായി എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഒരു അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അവരുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം കഴിഞ്ഞു ഇനി അവര്ക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ടു തന്നെ അവർ ഒരു നാലു ചുവരുകള്ക്കുള്ളിൽ ഒതുങ്ങിപ്പോവുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത് പൊതുവേ പക്ഷെ അത് പ്രായമായവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അങ്ങനെ ഒരാളെ നമ്മൾ ഒരു മുറിക്കുള്ളിൽ ആക്കുമ്പോള് അല്ലെങ്കില് വീടിനുള്ളിൽ ആക്കുമ്പോള് അവരുടെ ഫിസിക്കലും മെന്റലും സോഷ്യലുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് നമ്മൾ തടഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് അവര്ക്ക് പ്രൊഡക്റ്റിവിറ്റി നഷ്ടപ്പെട്ട് അവർ അവരുടെ ജനറേറ്റിവിറ്റി നഷ്ടപ്പെട്ട് അവർ സ്റ്റാഗ്നേഷന് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് അതായത് അവിടെ നിന്ന് അവര്ക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒന്നുമില്ല അങ്ങനെ അവർ ക്രമേണ രോഗികളായിട്ട് മാറുന്നു അത് ഇപ്പോൾ മാനസിക രോഗമാവാം അല്ലെങ്കില് ശാരീരികമായിട്ട് അവര്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നതാവാം അപ്പം ഇങ്ങനെ കിടപ്പിലായ രോഗികളുടെ എണ്ണം ഇപ്പം കൂടിക്കൂടി വരികയാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല കുടുംബാംഗങ്ങളുമായിട്ട് പോലുമവര്ക്ക് ഇന്ററാക്റ്റ് ചെയ്യാനുള്ള ഓപ്പര്ച്ചുണിറ്റീസ് അവസരങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മുതിര്ന്ന ആളോട് ഇരുന്ന് സംസാരിക്കുന്നത് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ അയാളുടെ മകനോ മകള്ക്കോ പോലും തികച്ചും അരോചകമായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ സ്പെന്ഡ് ചെയ്യാന് നമുക്ക് ഒന്നും സമയമില്ല എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവരെ ക്രമേണയായിട്ട് അവരെ ഒരു ഒരു രോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിടപ്പിലായാല് തന്നെയും നമ്മൾ ഇപ്പൊ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങള് കൊണ്ട് കിടപ്പിലായ രോഗികള്ക്ക് പോലും നമ്മൾ കെയറ് കൊടുക്കേണ്ടതും അവരെ ശുശ്രൂഷിക്കേണ്ടതും വളരെ ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനായിട്ട് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പാലിയേറ്റീവ് കെയര് പോലുള്ള ഒട്ടനവധി മികച്ച സര്വീസസാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പാലിയേറ്റീവ് പോലുള്ള സര്വീസസിനെ നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രമല്ലെങ്കിൽ ഗവണ്മെന്റ് മാത്രം വിചാരിച്ചാൽ അത് കമ്പ്ലീറ്റായിട്ട് നടത്താന് പറ്റുന്ന ഒന്നല്ല പകരം കുടുംബാംഗങ്ങളുടെ ഒരു കോണ്ട്രിബ്യൂഷനും അതിന് വളരെ ഇമ്പോട്ടന്റ് ആണ് പാലിയേറ്റീവ് കെയറിൽ പോലും ഒരു കിടപ്പ് രോഗിയെ അവരുടെ മരണത്തിലേക്ക് ഏറ്റവും സ്മൂത്തായിട്ടുള്ള രീതിക്ക് അവര്ക്ക് ഒരു ഹാപ്പി ഡെത്ത് ഓഫറ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പം അതിനായിട്ട് കുടുംബാംഗങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടൂണ്ട് ഇപ്പോഴും അവരോട് രോഗികളായിക്കോട്ടെ വൃദ്ധരായിക്കോട്ടെ അവരോട് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാമെന്നുള്ളത് വളരെ ഇമ്പോട്ടൻ്റ് ആണ് കാരണം അ അത് അവര്ക്ക് കൊണ്ടു വരുന്ന ഹാപ്പിനെസ്സും അവര്ക്ക് കൊണ്ടു വരുന്ന സാറ്റിസ്ഫാക്ഷനുമൊക്കെ വളരെ വലുതായിരിക്കും അപ്പം അതുകൊണ്ടു തന്നെ കൊച്ചുമക്കളും മക്കളുമൊക്കെ ചേര്ന്ന് കൊച്ച് കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് സ്പേൻഡ് ചെയ്യുക കുറച്ച് അവര്ക്ക് സന്തോഷം കൊണ്ടു വരുന്ന ആക്റ്റിവിറ്റീസ് ചെയ്യുക അവര്ക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക അങ്ങനെ കേൾക്കുന്നത് വഴി അവര്ക്കും അത് ഒരാശ്വാസമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളിലേക്ക് പല മൂല്യങ്ങളും നമ്മളുടെ കുടുംബത്തിന്റെ തന്നെ പാരമ്പര്യവും നമ്മുടെ നമ്മുടെ നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളുമൊക്കെ പകര്ന്ന് കൊടുക്കാന് പറ്റുന്ന ഒരവസരമായിട്ടു കണ്ട് അതുപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യാന് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം എന്റെ ഗ്രാമമെന്ന് പറയുന്നത് മാണിക്ക്യല് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു ഏരിയയിൽ വളരെ അധികം ശ്രദ്ധചെലുത്തുന്ന ഒരു ഒരു ഗ്രാമമാണ് അതായത് വൃദ്ധജനങ്ങളേയും വൃദ്ധരേയുമൊക്കെ അവർ അതേ പരിഗണന കൊടുത്ത് കുടുംബാംഗങ്ങളുടേയും ഒരു പാട്ടിസിപ്പേഷന് എന്ശൊറ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു വെല്ബീങ്ങിനായിട്ട് കോണ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയോട് കൂടി വേക്ക് ചെയ്യുന്നതാണ് അതിനായിട്ട് ആശാ വര്ക്കേസ് ആയിക്കോട്ടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിക്കോട്ടെ വൈസ്പ്രസിഡൻ്റായിക്കോട്ടെ ഈ ഒരു മേഖലയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവര്ക്ക് വേണ്ടീട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിലും ഗ്രാമം പ്രത്യേക ശ്രദ്ധയെടുക്കുന്നുണ്ട് കുടുംബാംഗങ്ങളും ഈ ഒരു പദ്ധതികളെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതിൽ വളരെ ഇമ്പോട്ടൻ്റ് ആണ് അപ്പം അവരെ അറിയിച്ച് ഈ പ്രായമായവര്ക്ക് വേണ്ടിയിട്ടുള്ള സെര്വീസസ് പ്രൊവൈഡ് എത്തിക്കാനായിട്ട് മാക്സിമം നമ്മുടെ ഗ്രാമത്തിലെ ആള്ക്കാരും അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ ഭരണ വ്യവസ്ഥിതിയൊക്കെ ഇതിനായിട്ട് കോണ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആന്ഡ് ഇതിന്റെ ഒരു അത്യാവശ്യം അല്ലെങ്കില് ആവിശ്യകത നമ്മൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാന് പറ്റാത്തതാണ് കാരണം പ്രായമായവര്ക്കും അവരുടേതായ ഡിഗ്നിറ്റിയും അവരുടേതായ വേർത്ത് ഒക്കെയുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോട്ടൻ്റ് ആണ് അവരെയും നമ്മൾ ഇന്റിവിജ്വല്സ് ആയിട്ട് മനുഷ്യരായിട്ട് കണ്സിഡർ ചെയ്ജ് അവര്ക്ക് എത്തിപ്പെടാന് പറ്റുന്ന അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒത്തിരി പ്രാധാന്യം അര്ഹിക്കുന്ന ഒന്നാണ്